എൻ്റെ അടുക്കളയിൽ സാധാരണ പാത്രങ്ങൾ വയ്ക്കുന്നത് ഒരു ഷെൽഫിലാണ് ആ ഷെൽഫിൽ അടിത്തട്ടിൽ വയ്ക്കുന്നത് സ്പൂണുകളും കയിലുകളുമാണ് കയിലുകളെന്ന് പറയുമ്പോൾ ഇളക്കാൻ ഇളക്കാൻ പറ്റുന്നതും കോരി എടുക്കാൻ പറ്റുന്നതും രീതിയിലുണ്ട് ചിലത് കുണ്ടുള്ളതുണ്ട് ആ കുണ്ടുള്ളത് എങ്ങനെയാണെന്ന് വച്ചാൽ കൂട്ടാൻ ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂട്ടാൻ കോരി ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുക ചിലത് കുറച്ച് പരന്നിട്ടുള്ള തലഭാഗം ഉണ്ട് അത് എങ്ങനെയാണെന്ന് വച്ചാൽ ഇളക്കാൻ കൂടിയിട്ടാണ് ഉപയോഗിക്കാറ് പിന്നെ ചെറിയ ചെറിയ സ്പൂണുകള് കോരി കഴിക്കാൻ വേണ്ടിയിട്ടും വിളമ്പാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുക പിന്നെ അടുത്ത സെക്ഷൻ തട്ടികളിൽ വച്ചാൽ കുറേ ഗ്ലാസ്സാണ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സാണ് കൂടുതൽ ഉള്ളത് പിന്നെ ഒരു കോപ്പയുണ്ട് കോപ്പയെന്ന് പറയുമ്പോൾ ഗ്ലാസ്സിനേക്കാളും കുറച്ച് വലുപ്പം ഉള്ളത് ഇതൊക്കെ സാധാരണ കുടിക്കാനും ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് പിന്നെ അടുത്ത തട്ട് ചെറിയ ചെറിയ പിഞ്ഞാണങ്ങൾ എന്നുപറയും ചിലത് പ്ലേറ്റ് എന്നുപറയും അപ്പോൾ പ്ലേറ്റ് ചിലതും ചെറുതുമുണ്ട് വലുതുമുണ്ട് ചെറിയ പ്ലേറ്റ് ഉപ്പേരി വിളമ്പാനും അച്ചാർ വിളമ്പാം പുളിയിഞ്ചി വിളമ്പാം അങ്ങനെ തൊട്ട് കൂട്ടാൻ ഉള്ള രീതിയിൽ വിളമ്പാൻ പറ്റിയതും ബാക്കി വലിയ പത്രങ്ങൾ എന്നു പറയുന്നത് ചോറ് ദോശ ചപ്പാത്തി അങ്ങനെ അങ്ങനത്തെയുള്ള ഭക്ഷണ സാധങ്ങൾ വിളമ്പാൻ വേണ്ടിയിട്ടാണ് ആ പ്ലേറ്റുകൾ ഉപയോഗിക്കുക അടുത്ത തട്ടില് ഡവറ പിന്നെ ചീനച്ചട്ടി അങ്ങനത്തെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെയാണ് അത് ഉപ്പേരി വിളമ്പിയെടുത്ത് വയ്ക്കാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാനും വളമ്പിക്കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡവറകളും ചെറിയ ചെറിയ പാത്രങ്ങളും ഉപയോഗിക്കണത് അത് അത്യാവിശം കുണ്ടുള്ള പാത്രങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഈ ഡവറയിൽ വെള്ളം ചൂടാക്കാനും ഉപയോഗിക്കാറുണ്ട് അടുത്ത തട്ടില് വലിയ വലിയ പാത്രങ്ങളായ ചെമ്പട്ടി പിന്നെ അണ്ടാവ് പിന്നെ കുക്കറുണ്ട് ഉരുളിയുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ വലിയ അണ്ടാവിലൊക്കെ വെള്ളം നിറച്ച് വയ്ക്കും പിന്നെ ചെമ്പട്ടിയിലൊക്കെയാണ് സാധന ചെമ്പിലൊക്കെയാണ് സാധാരണ ബിരിയാണി വയ്ക്കാറ് കുക്കറിൽ എന്തെങ്കിലും വേവിക്കാൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഉരുളിയിൽ സാധാരണ പായസം ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ചിക്കൻ കോഴി അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇങ്ങനത്തെ ചീന ചട്ടിയിലും അതേപോലെ തന്നെ ഉരുളിയിലും വെച്ചിട്ടൊക്കെയാണ് പിന്നെ ഉള്ള പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഉപ്പേ പൊടികൾ എടുത്ത് വയ്ക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെയാണ് അതായത് ചായപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി അങ്ങനത്തെ പൊടികൾ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റിയ പാത്രങ്ങളാണ് വേറെ ഉള്ളത് പിന്നെ അണ്ടാവിൻ്റെ തന്നെ ചെറിയ പാത്രങ്ങളുണ്ട് പിന്നെ അച്ചാർ കുപ്പികളുണ്ട് അച്ചാർ കുപ്പി മറ്റേ ചില്ലിൻ്റെ കുപ്പിയാണ് ഉള്ളത് ചില്ലിൻ്റെ കുപ്പിയിൽ നല്ല ഉറപ്പുള്ള ചില്ലായിരിക്കും അയിലാണ് ഞങ്ങൾ അച്ചാർ ഇട്ട് വെക്കാറുള്ളത് പിന്നെ വലിയ വലിയ പാത്രങ്ങൾ ഞങ്ങൾ പഞ്ചസാര എടുത്ത് വെക്കും ശർക്കര എടുത്ത് വെക്കും പുളിയെടുത്ത് വെക്കും ചായ പൊടി എടുത്ത് വെക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ള അടുക്കളയിലെ പാത്രങ്ങളുടെ ശേഖരം